ആ ആ ഹലോ ആ എന്ത് ഹോട്ടലാണെടാ നിങ്ങളെ പഴമ്പൊരി മേടിച്ചായിരുന്നു അതിൻ്റകത്ത് മൊത്തം മുടിയാണല്ലോ അതുപോലെ അതിന്

അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് അല്ല അല്ല ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്

നല്ല ക്രിസ്പ്പായിട്ടുണ്ട് ഏ ഇല്ല ഇല്ല അതെടുത്തു കളഞ്ഞിട്ട് പഴമ്പൊരി ബാക്കിയുള്ളത് കഴിക്കുകയാണ് ചെയ്തത് ആ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ പോരെ ആ അത് കൊണ്ടുത്തരാം എന്നാൽ നിങ്ങൾക്കൊരു ഹാൻവാഷെങ്കിലും വെച്ചുകൂടെ ആ സോപ്പുതന്നെ നോക്കെടാ ഇല്ല ഇല്ല ഇല്ലയില്ല സോപ്പെയുള്ളൂ ആ സോപ്പാണെങ്കിൽ മൊത്തം അലിഞ്ഞ് ബോട്ടിലേ ഇല്ലായിരുന്നു ആ പൈപ്പ് മൊത്തം ലീക്കിങ്ങാണല്ലോ പൈപ്പിൽ നല്ലോണം പോവുന്നുണ്ട് പുറത്തേക്ക് ആ പൈപ്പിൽ നിന്ന് നല്ലോണം പുറത്തേക്ക് പോവുകയായിരുന്നു വെള്ളം ഞാനവിടെ കൈ കഴുകാൻ വേണ്ടി എത്തുമ്പോഴേക്കു തന്നെ വെള്ളം കഴിയുകയും ചെയ്തിന് അല്ല ഈ ക്യാൻ്റീനിൻ്റെ ചുറ്റുപാടൊന്ന് ഇയാൾക്കൊന്ന് വൃത്തിയാക്കിക്കൂടെ ക്യാൻ്റീനിൻ്റെ ചുറ്റുപാടൊന്ന് വൃത്തിയാക്കിക്കൂടെ മൊത്തം വേസ്റ്റാണല്ലോ മൊത്തം വേസ്റ്റാണല്ലോ സൺഡേ അത് നിങ്ങൾ ദിവസം രാവിലെ ചെന്ന് ചെയ്തുകൂടെ എന്നാലും നിങ്ങളെയൊരു സ്ഥാപനമല്ലേ ആ ശരിയാണ് ആ ഓക്കെ